തീർച്ചയായും സാങ്കേതിക വിദ്യയെ അതുപോലെ ഇന്റർനെറ്റും അവയുടെ ഉപയോഗം തീർച്ചയായും ഓരോ കാലത്തിന് അനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാലത്തിനനുസരിച്ച് മനുഷ്യർക്കിടയിൽ ഈ ഒരു സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഇന്റർനെറ്റിൻ്റെ ഉപയോഗം ഒരുപാട് കൂടി കൂടി വരുകയാണ് അങ്ങനെ മനുഷ്യരാരും സാങ്കേതിക വിദ്യയുടെ ലോകത്തേക്ക് മാത്രം ഒതുങ്ങി കൂടുകയാണ് പുതുതലമുറയായിക്കോട്ടെ കൂടുതലും ഇന്റർനെറ്റിൽ ഫോണിലും ലാപ്ടോപ്പുകളിലുമാണ് അവരുടെ മിക്കവാറുമുള്ള ഒരു ദിവസത്തിലെ സമയം ചിലവഴിക്കുന്നത് പുറംലോകമായി ഒന്നും അധികം അവർ ആരോടും സംവദിക്കാനും ആരോടും ഒന്നും സംസാരിക്കാനും കാര്യങ്ങൾ തുറന്ന് പറയാനുമുള്ള ഒരു അവസരം ഇല്ലാണ്ട് ഒരു ഒറ്റക്കുള്ള ഒരു ജീവിതമാണ് പുതിയ തലമുറയിലുള്ള യുവാക്കൾ അല്ലെങ്കിൽ യുവതീയുവാക്കൾ ചെയ്ത്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അവിടെ മലയാള ഭാഷയുടെ ഉപയോഗത്തിൽ വന്ന മാറ്റങ്ങൾ എന്താ എന്ന് പറഞ്ഞാൽ തീർച്ചയായും സംസാരം തന്നെ ഒരു രണ്ട് പേർക്കിടയിലുള്ള സംഭാഷണം തന്നെ ഇല്ലാതെയായി പോകുകയാണ് അതുപോലെ തന്നെ മലയാളം എന്ന ഭാഷ ഭൂരിഭാഗം കുട്ടികളും അത് മറന്ന് പോകുന്നു മലയാളം സംസാരിക്കാൻ അറിയാം പക്ഷെ എഴുതാനും മറ്റും വായിക്കാനും ഒന്നും അറിയാത്ത എത്രയോ കുട്ടികളുണ്ട് അങ്ങനെ മലയാള ഭാഷയുടെ തന്നെ ഒരു ഉപയോഗം കുറഞ്ഞ് കുറഞ്ഞ് വരുകയാണ് ഇനി വരുന്ന കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സാങ്കേതിക വിദ്യയുടെ ഒക്കെ ആഗമനം ഒരുപാട് ഭാഷകളിൽ ഒരുപാട് മാറ്റം വരുത്തിയേക്കാം നമ്മുടെ മലയാള ഭാഷ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അറിയാതെ പോകാൻ അറിയാതെ പോകാനും ഉള്ള കാലങ്ങൾ ഏറെയാണ്